മലപ്പുറം ജില്ലയിൽ കാണാൻ കുറേയുണ്ട് അത് കുറേ ടൂറിസ്റ്റ് പ്ലയ്സൊക്കെയുണ്ട് അതു കൊണ്ടാണ് മിനി ഊട്ടി അവിടെ കുറേ കാണാനുണ്ട് അവിടൊരു ഗ്ലാസ്സ് ബ്രിഡ്ജൊക്കെയുണ്ട് നമുക്ക് അതിന്മേൽ കയറി ഫോട്ടോ ഒക്കെയെടുക്കാം അതിന്മേൽ കയറാൻ നൂറുപ്യേണ് ആടെ കയറി കണ്ട് ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നവിടെ കുട്ടികൾക്ക് കളിച്ചാൻ വണ്ടിയിട്ടിട്ട് പാർക്കുകളുണ്ട് സ്വിമ്മിങ്ങ് പൂളുണ്ട് അങ്ങനത്തെ കുറേ യന്ത്രങ്ങളൊക്കെയുണ്ട് അവിടെ ഇവിടെക്കുമെല്ലാവർക്കും കളിക്കുക അതുപോലെ കാണാം പിന്നെ അതെപോലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഞങ്ങളുടെ നാട്ടിലെ മൊട്ടകുന്ന് ഈ മൊട്ടക്കുന്നിൽ കുറേ വിനോ വിദേശത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാനെല്ലൊക്കെയുണ്ട് ഭയങ്കര രസമാണ് അവിടുന്നു നോക്കിയാൽ മഞ്ഞൊക്കെ കാണാൻ പറ്റും പിന്നെ കോട്ട കുന്നുണ്ട് കോട്ട കുന്നെന്നു പറഞ്ഞാൽ ഒരു പാർക്കാണ് അവിടെ പോയിട്ടൂ നമുക്ക് കുറേ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെയുണ്ട് കുറേ കാണാനുണ്ട് അവിടെ ഞായറാഴ്ചകളിൽ ഒരു വാട്ടർ ഷോ ഉണ്ടാകലുണ്ട് വെള്ളം കൊണ്ട് കുറേ ലൈറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു പാട്ടൊക്കെ ഇട്ടൊരു ഒരു പരിപാടിയാണത് അത് കാണാൻ ഭയങ്കര രസമാണ് പിന്നെ അവിടെ തന്നെ കുട്ടികൾ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് വലിയവർക്ക് കാണാനുള്ള സ്ഥലമുണ്ട് പിന്നെ മലപ്പുറത്ത് കുറേ സ്ട്രീറ്റ് ഫുഡ്ഡൊക്കെയുണ്ട് അതൊക്കെയൊന്ന് കഴിച്ച് അറിയേണ്ടതു തന്നെയാണ്